ഞങ്ങളുടെ സ്ഥലത്തെ നീലമ്പേരി എന്നത് ഒരു കരകൗശല പടയണിപ്പൂരം അവിടുത്തെ എന്നാ കരകൗശലങ്ങൾ കാണാനൊക്കെ ഞങ്ങൾ പോവുകയും അവിടെ ഈ ഈറ കൊണ്ടും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മൈന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഭയങ്കരം ആണ് പടയണിപ്പൂരം അത് അവിടെ ഞങ്ങൾ പോകാറുണ്ട് അവിടെ അതുകൊണ്ട് നല്ല രസമാണത് കാണാനായിട്ടൊക്കെ പിന്നെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമയിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് അത് അനുകരിച്ചാൽ അത് നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാകും കുട്ടികളൊക്കെയാണെങ്കിൽ അത് അനുകരിക്കും നല്ലനല്ല കാര്യങ്ങൾ സിനിമയിൽനിന്ന് നമുക്ക് ജീവത്തിലേക്ക് പകർത്താൻ പറ്റും ചില കാര്യങ്ങളിലൊക്കെ അത് മോശമായിട്ടും വരാറുണ്ട് പിന്നെ പാഷൻ ഷോയ്കളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് അത് കൂടുതലായിട്ട് നമ്മക്കത് തോന്നാറില്ല അതിനെപ്പറ്റി നല്ലതാണെന്ന് പറയുന്നില്ല കാരണം ഫാഷൻ ഷോ അതിനെ ഇഷ്ടപ്പെടുന്നവരും കാണും ഇഷ്ടപ്പെടാത്തവരും കാണും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരസ്യങ്ങളിലുമൊക്കെയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഡ്രസ്സ്കൾ ചെയ്യ്മ്പള്ത്തേക്ക് തന്നെ അത് പിന്നെ മറ്റുള്ള ദുരിത ഉപേദശ പിന്നെ ദുരിതങ്ങളിലേക്ക് വഴിമാറും അത് പരസ്യങ്ങളിൽ ആണെങ്കിലും ഫാഷൻ ഷോകളിൽ ആണെങ്കിലും ഇത് കൂടുതലായിട്ട് വരാൻ പാടില്ല അങ്ങനൊക്കെയാണ് നമുക്ക് തോന്നാറുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്